ആദ്യകാലത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് നോക്കിയയുടെ ഒരു ചെറിയ ഫോണായിരുന്നു കീപാഡിൻ്റെ ചെറിയൊരു ഫോൺ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് പോക്കോ റ്റു ആൻഡ്രോയിഡിൻ്റെ ഒരു പോകോ ഫോണാണ് എന്നാൽ പക്ഷേ പണ്ടുകാലങ്ങളിൽ നമ്മുടെ ആ ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വിളിക്കാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു അതായത് കോള് ചെയ്യാനോ ഒരത്യാവശ്യം വേണ്ടി വന്നാൽ വല്ല എസ് എം എസ് അയക്കാനോ ഒരു മെയിലയയ്ക്കാൻ പോലും സാധിക്കാത്തയൊരു കാലഘട്ടമായിരുന്നു എന്നാൽ പക്ഷേ ഈ സമയം ഈ ഒരു കാലഘട്ടങ്ങളിലുള്ള മൊബൈൽ ഫോണെന്നു പറയുന്നത് സ്മാർട്ട്ഫോണിൻ്റെ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള എത്ര ദൂരെയുള്ള ഒരാളാണെങ്കിൽപ്പോലും നമുക്കൊന്ന് വിളിക്കണമെന്നു തോന്നിയാൽ അന്നേരം വിളിക്കാം അല്ലെങ്കിൽ ഒന്നു കാണണമെന്ന് തോന്നിയാൽ ഒരു വോയിസ് ഇടുക വീഡിയോ കോൾ ചെയ്യാം എന്ത് കാര്യമാണെങ്കിൽപ്പോലും ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചുകൊടുക്കണോ അല്ലെങ്കിൽ എന്തത്യാവശ്യമുണ്ടെങ്കിൽ പോലും നമുക്കൊരു വാട്സപ്പ് വഴി ബന്ധപ്പെടാൻ സാധിക്കും അതുപോലെത്തന്നെ നമ്മുടെ വാട്സപ്പ് വഴി ബന്ധപ്പെടുന്നത് പോലെത്തന്നെ അതിനകത്തോരോ ഫോട്ടോ അയക്കാനാണെങ്കിൽ പോലും ഇപ്പം നമുക്കതിന് ഏതു സമയത്താണെങ്കിൽ പോലും പെട്ടെന്നയയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം നമ്മുടെ സാമ്പത്തിക മാധ്യമങ്ങളെ പറ്റിയുള്ള ഇൻസ്റ്റാഗ്രാമിലെ ഒരു എന്ത് ന്യൂസുണ്ടെങ്കിൽ പോലും നമക്കതിനെ അന്നേരം തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്ക് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ പോലും നമുക്ക് അന്നേരം ആ ഒരു രീതിയിൽ പെട്ടെന്നറിയാനുള്ള സഹായകമായ ആ ഒരു രീതിയാണ് നമുക്ക് കിട്ടുന്നത് എത്ര പെട്ടെന്നാണെങ്കിൽപോലും ഇനിയിപ്പം നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരെ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ നമുക്കന്നേരം തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് പറഞ്ഞ് അതിനെപ്പറ്റി ഡീറ്റയിലായിട്ട് അറിയാനുള്ള ആ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പണ്ടുകാലത്തെ പോലെയല്ല ഇപ്പം എന്തെങ്കിലും ഒരു ബാങ്ക് വഴി പൈസ അടക്കണമെങ്കിൽ പോലും അപ്പം എത്ര രൂപയാണെങ്കിൽപോലും നമുക്ക് ഒരു രൂപ തൊട്ട് എത്ര വലിയ തുകയാണെങ്കിൽപ്പോലും നമുക്കതിനെ അന്നേരെ പൈസ അടക്കാനും എല്ലാത്തിനും സാധിക്കുന്നതാണ് അപ്പം അതുപോലെത്തന്നെ നമ്മുടെ എന്തെങ്കിലുമൊരു ഫേസ്ബുക്കാണെങ്കിൽ പോലും തന്നെ നമുക്ക് അങ്ങനെ ഒരു വാർത്താമാധ്യമം പോലെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് മുൻപോട്ട് കൊണ്ടുപോവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് മാധ്യമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എന്തെങ്കിലും പണ്ട് കാലങ്ങളിൽ പഠിക്കാനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽത്തന്നെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരോടോ അല്ലെങ്കിൽ ഒരു അമ്മയോടോ അങ്ങനെ വല്ലതും ചോദിച്ച് മുൻപോട്ടു പോരണമായിരുന്നു കാര്യം നമ്മുടെ ഒരു ഒരു അതിനെപ്പറ്റി സംശയമുള്ളതിനൊന്നും പറഞ്ഞ് തരാനൊന്നും വേറെ ആരുമില്ലായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഫോ നമുക്ക് ഫോണെന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടി പോലെയുള്ള ഒരുപാട് എ ഐകളുണ്ട് അപ്പം അത് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഫോണിൽ കയറാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആ സെക്കൻഡ് നമ്മളതേപ്പറ്റി പഠിപ്പിച്ച് പറഞ്ഞുതരും അതുപോലെത്തന്നെ നമ്മുടെ സ്പേയ്സ് റിസേർച്ച് അതുപോലെത്തന്നെ നമുക്ക് അറിയാത്ത നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി എല്ലാം അറിയാനും അല്ലെങ്കിൽ അതുപോലെത്തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള ആ ഒരു എല്ലാ കാര്യത്തിലുമുള്ള ആ ഒരു സ്ട്രെങ്തും ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു മാധ്യമങ്ങളിലൂടെയാണ് പണ്ട് കാലങ്ങളിലുള്ള ഫോണെന്ന് പറയുന്നത് അല്ല ആദ്യകാലഘട്ടങ്ങളിലുള്ള ഫോണെന്നു പറയുന്നത് ഒരു ആദ്യ കാലഘട്ടത്തുള്ള ഒരു ഫോണെന്നു പറയുന്നത് നമ്മുടെ ഒരു അതിനകത്ത് ഫോൺ വിളിക്കാൻ മാത്രമുള്ളയൊരു സാധനമായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പം അതിലുപരി ടെക്നോളജി എന്നുപറയുന്നത് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അതിൻറ്റേതായ രീതിയിൽ നമുക്കിപ്പം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അന്നേരം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും മരണമോ എന്തെങ്കിലും നടന്നാൽ പോലും അന്നേരം നമുക്ക് വിളിച്ചറിയാൻ പോലും ആണെങ്കിൽ ഇപ്പോഴത്തെ ഫോണുകൾ നമുക്ക് സഹായിക്കും അതുപോലെത്തന്നെ ഇപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അന്നേരം വേറെ ഒരു ക്യാമറമാനേ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഫോണിൽ സെൽഫുണ്ട് അതുപോലെത്തന്നെ ഒരുപാട് കാര്യങ്ങൾ ക്യാമറപരമായ രീതിയിലും എല്ലാത്തിലും നമുക്കൊരുപാട് പ്രയോജനം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നമുക്കെന്തെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ളവരെ ഫോട്ടോകൾ ഫോട്ടോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാനാണ് ഇൻസ്റ്റാഗ്രാമെന്നു പറയുന്നൊരു ആപ്ലിക്കേഷൻ അതുപോലെത്തന്നെ നമുക്കൊരുപാട് വീഡിയോസ് കാണാൻ പണ്ട് കാലങ്ങളിൽ ഒരു ടി വി അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പ്രമാണിമാരുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കണം അല്ലെങ്കിൽ പൈസ കൊടുത്ത് സിനിമ പീടികയിൽ പോയി സിനിമ സിനിമാ കാണേണ്ട ആ ഒരു സാഹചര്യമായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് മുൻപോട്ട് പോവാം എന്ന് പറയാനാണെങ്കിൽ പോലും എത്ര എത്ര പുതിയ സിനിമയാണെങ്കിൽ പോലും നമുക്കതന്നേരം ഫോണിൽ കിട്ടും അതായത് ടെലിഗ്രാമ് പോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് എന്ന അതുപോലെത്തന്നെ മാധ്യമങ്ങളെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന അവസരങ്ങളുണ്ട് എന്നാൽ പക്ഷേ അതിലൊന്നും ഏർപ്പെടാതെ നേരായ രീതിയിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോയ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ളത് ഇപ്പം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ സ്കൂളുകളിൽ ഓരോ പരീക്ഷ നടത്താനാണെങ്കിൽ പോലും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരത്യാവശ്യ സാഹചര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പോലും അന്നേരം നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി പേപ്പറ് വർക്കുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ എന്നാൽ പക്ഷേ ഇപ്പോൾ ഒരൊറ്റ കോള് മതി അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിലെ കാര്യം കൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളും നമ്മുടെ കൈകുമ്പിളുകളിലെത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെത്തന്നെ നമ്മുടെ ജീവിതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് തന്നെ മാധ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെത്തതന്നെ നമ്മുടെ ജി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാധ്യമങ്ങൾ ഒരുപാട് ഇത് കഷ്ടപ്പെടുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽത്തന്നെ അതിനെ നമ്മളന്നേരം വേറെ ഒരു രീതിയിലല്ലെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിക്കേണ്ടേ ആ ഒരു സാഹചര്യമായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നമുക്ക് എന്തെങ്കിലും പടങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽപ്പലും അതേപോലെ നമുക്ക് എന്തെങ്കിലും പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ എന്തു സാധനമാണെങ്കിൽപ്പോലും നമുക്കന്നേരം ഫോണ് വഴി ഓർഡർ ചെയ്യാം ഫ്ലിപ്കാർട് ആമസോൺ നമ്മുടെ വീടുകളിലുള്ള സർവ്വസാധനങ്ങളും നമുക്കിപ്പം അവൈലബിളാണ് വാങ്ങിക്കാൻ അതിൽ എത്ര പൈസ പ്രശ്നമാണെങ്കിൽപ്പോലും നമുക്ക് ഫ്ലിപ്കാർട് വഴി ഓർഡർ ചെയ്താൽ അന്നേരം നമുക്കാ സാധനത്തിനെ നമ്മുടെ വീടുകളിൽ എത്തിക്കാനുള്ള എത്താനുള്ള സാഹചര്യം കിട്ടും അല്ല എത്തിച്ച് തരും ഇനിയിപ്പം എന്തെങ്കിലും വീട്ടിലൊരു എമർജൻസി ആക്സിഡൻഡായാൽ അന്നേരം ഇകൊമേസ് എക്സ്പ്രസ്സ് വഴി അവിടെ വിളിച്ചാൽ അന്നേരമവർ വണ്ടിയും കൊണ്ടുവരും അതുപോലെത്തന്നെ നമുക്ക് ഒരു എന്ത് കാര്യമാ ഇപ്പം വിദേശത്തിരിക്കുന്ന മക്കളാണെങ്കിൽപ്പോലും ഒന്ന് മാതാപിതാക്കളെ കാണണമെന്നുണ്ടെങ്കിൽ അന്നേരം ഫോണ് വഴി ബന്ധപ്പെട്ട ഒന്ന് വീഡിയോ കോൾ ചെയ്യാനും എല്ലാത്തിനും ഉള്ള ആ ഒരു അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെത്തന്നെ നമ്മുടെ ഫേസ്ബുക്കെന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ അതായത് അതിനകത്ത് നമുക്ക് നാട്ടിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിയാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെത്തന്നെ നമുക്കിപ്പം യൂട്യൂബ് അതിനകത്തുകൂടെ നോക്കി ഓരോ വീട്ടുകാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ വീട്ടിൽ എന്തെങ്കിലും ഫുഡുണ്ടാക്കുന്ന കാര്യം നമുക്കറിയാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിപ്പോലും നമക്കതിനെപ്പറ്റി അതിനകത്തുകൂടെ യൂട്യൂബിലൂടെ ഓരോ വീഡിയോ ഇടുന്നതിലൂടെ അവർക്ക് അവരുടേതായ ഒരു വരുമാനം അവർക്കുണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഫേമസാവാനുള്ള ആ ഒരവസരം എല്ലാ യുട്യൂബ് സഹായിക്കുന്നതാണ് അതുപോലെത്തന്നെ നമ്മുടെ ഫോണിലുള്ള ഓരോരോ ആപ്പുകൾ പോലും ജി ജിമെയിൽ എന്നു പറയുന്നത് ജിമെയിലെന്ന് പറയുന്ന ഓരോരുത്തർക്കും നമക്ക് മെയിലയക്കാം പണ്ട് കാലങ്ങ ഇപ്പം വിളിക്കാൻ എന്നുള്ള ആ ഒരു രീതി മാത്രവല്ല എന്തേലും അയക്കാനൊണ്ടേ അത്യാവിശ കാര്യങ്ങളപ്പം മെയിൽ അയച്ചു കൊടുക്ക അങ്ങനുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മടെ ജീവിതത്തിൽ നടക്കാൻ പറ്റും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളാണെങ്കിൽപോലും നമുക്കിപ്പം ഒരു എന്തോ ഇപ്പം കോളേജോ ഡിഗ്രി ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവസരമുണ്ട് ഓരോ കാര്യങ്ങളിലും വീട്ടിലിരുന്ന് എന്തുണ്ടെങ്കിൽപ്പോലും നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്നതേ ഉളളൂ ഒരു ഒരു ഡിഗ്രി പോലും അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് പുറത്ത് പോവേണ്ട കാര്യമൊന്നുമില്ല തന്നെ നമുക്കിരുന്ന് പഠിച്ച് ഡിഗ്രി എടുക്കാവുന്നതേയുള്ളു അതുപോലെത്തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഓരോ വ്യക്തിയേയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷേ ഈ ഒരു മാധ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെത്തന്നെ ഒരു മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായി നമുക്ക് ബന്ധപ്പെടാനും അതുപോലെത്തന്നെ ഫേയ്സ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പുതുതായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കുന്ന ഒരിതാണ് ഒന്നുമില്ലെങ്കിലും ഫോൺ വഴി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആപ്പ്ളിക്കേഷൻസുണ്ട് അതുവഴി നമുക്ക് അവരെ ബന്ധപ്പെട്ട് നമുക്കവരുമായിട്ട് മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരവസരം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെത്തന്നെ നമ്മൾക്ക് ഇപ്പം എന്തെങ്കിലും നമുക്കിപ്പം പിള്ളേർക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഗെയിം കളിക്കണോ അന്നേരം നമുക്ക് ഫോണ് വഴി ഗെയിമ് കളിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിലും ഇപ്പം ഒരു പക്ഷേ വീട്ടിൽ എന്തെങ്കിലും വയ്യായ്കേടായമ്മയ്ക്ക് ഫുഡില്ല അപ്പം ഫുഡ് എന്തെങ്കിലും ഡെലിവർ ചെയ്യണം അപ്പം നമുക്കെന്തെങ്കിലും ആവശ്യപ്രകാരം ആവശ്യത്തിന് ഫുഡ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആ ഒരു ഫുഡ് എത്തിക്കാനുള്ള ആ ഒരു മാർഗം നമുക്ക് സൊമാറ്റോ വഴി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് ആ ഒരു രീതി നമുക്ക് ഫുഡ് വരാൻ പറ്റും ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ എല്ലാമുണ്ട് അതുപോലെത്തന്നെ നമുക്ക് എന്ത് ഇപ്പോൾ എന്ത് അത്യാവശ്യമോ വിഷമമോ സങ്കടമോ എന്തുണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അന്നേരം നമുക്ക് ഫോൺ വഴി ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് ഒരുപാട് ഇനിയിപ്പം എന്തെങ്കിലും എമെർജൻസി സിറ്റുവേഷൻ നമുക്കാരെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ ഫോൺ വഴി ലൊക്കേഷൻ ഇടാവുന്ന അതുപോലെ തന്നെ ഗൂഗിൾ മാപ് ഒരു ഒരു പ്രദേശം ചുറ്റിപറ്റിക്കിടക്കുന്ന ഒരാൾക്ക് അവിടെനിന്ന് പുറത്തോട്ട് പോവണമെങ്കിൽ എവിടെ ചെല്ലണം ഏത് വഴി പോവണമെന്നൊന്നും ഒരു ഗ്രാഹ്യവുമില്ലാത്തവർ വ്യക്തിയായിരിക്കും എന്നാൽ പക്ഷേ ആ ആൾക്ക് ഫോണിലെ ഗൂഗിൾ മാപ് സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവണമെങ്കിൽ അവർക്കെത്തേണ്ട സ്ഥലത്ത് ആ ഒരു ഗൂഗിൾ മാപ്പെത്തിക്കും അതെല്ലാം ഈ ഫോണിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ ഒരു മാധ്യമങ്ങൾ നമ്മളെ അതുപോലെ ഏർപ്പെടുത്തിയെടുത്ത് അല്ലെങ്കിൽ നമ്മളെ അതുപോലെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലുമൊരു സിനിമ കാണണമെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിൽപ്പോലും അന്നേരം നമ്മുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നമുക്കാ സിനിമ കാണാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ആദ്യ ഫോണൊക്കെയെന്ന് പറയുന്ന ചെറിയ ചെറിയ കീപാഡ് സാധനമായിരുന്നു അത് വിളിക്കാനല്ലാതെ വേറൊരുപയോഗവും ഇല്ലാത്തൊരു ഫോണായിരുന്നു അതിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിൽ വന്നേക്കുന്ന ഫോണെന്നു പറയുന്നത് അതുപോലെ തന്നെ അതിനെ അത്ര മനോഹരമായ രീതിയിൽ അവർ ഫീച്ചറ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സാധനമാണ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനാണെങ്കിൽപ്പോലും ചെറിയ ചെറിയ മൊബൈൽ ഫോണുകളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പല വേർഷനുകളായിട്ടാണ് ആൻഡ്രോയിഡ് ഐ ഫോണ് അങ്ങനെയങ്ങനെ റിയൽമി റെഡ്മി അങ്ങനെയങ്ങനെ ഒരുപാട് ഫോണുകളെല്ലാം നിർമ്മിച്ച് വരുന്നുണ്ട്